ഇപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നു പാർട്ടികളിപ്പേറ്റവും ശക്തിയായിട്ട് നിൽക്കുന്നതൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ എൽ ഡി എഫെന്നു പറയും രണ്ടു കോൺഗ്രസ്സ് അല്ലെങ്കിൽ യു ഡി എഫെന്നു പറയും പിന്നെ മൂന്ന് നമ്മൾ ബി ജെ പിയെന്നു പറയും ഇപ്പം കോൺഗ്രസ്സുകാരുടെ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിലാണേൽ പോലും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു എന്താ സ്വാധീനം എന്താ മൂലമാണിപ്പം ഈ പാർട്ടി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെയാണെങ്കിൽ ഉമ്മൻചാണ്ടി കെ എം മാണി അവരെപോലെയുള്ള ആളുകൾ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി ആരുടെ സമയത്താണെങ്കിലും കോൺഗ്രസ്സ് പാർട്ടിക്കു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ അതായത് നമ്മുടെ ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ തുടർച്ചയായിട്ട് അതായത് ജവഹർ ലാൽ നെഹ്രുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ തുടർച്ചയായിട്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ കോൺഗ്രസ്സ് പാർട്ടീനെ കാണുന്നത് പിന്നെ നമ്മുടെ ഇപ്പം ഭരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണപക്ഷമാണ് പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫെന്നു പറയുന്നത് അതിലേക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രിസ്സിൻ്റെ തന്നെ ഭാഗമായിരുന്ന കെ എം മാണിയുടെ മകനായ ജോസ് കെ മാണി മാ കോൺഗ്രസ് വിട്ട് മാണിയുടെ മാണി ഗ്രൂപ്പ്കാരെല്ലാവരും കൂടി ഇപ്പ എൽ ഡി എഫിലേക്ക് ചേരുകയും രണ്ടില അങ്ങനെ എൽ ഡി എഫിൻ്റെ കൈകളിലാവൊക്കെ ചെയ്തത് നമ്മളിപ്പം ഈ ഇടക്കെല്ലാം കണ്ടതാണ് അങ്ങനെ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ അതു കഴിഞ്ഞ് ബി ജെ പി എടുക്കുവാണെങ്കിൽ നമ്മുടെ നരേന്ദ്ര മോഡി നമ്മുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നു പറയുന്ന ബി ജെ പി അപ്പം ഇപ്പം ഇത്തവണത്തെ എലക്ഷൻ തന്നെ നമ്മള് ലോകസഭാ എലക്ഷൻ തന്നെ നോക്കയാണെങ്കില് നമ്മള് കാണാൻ പറ്റും ഇപ്പ കേരളത്തിലെ നമ്മള് നോക്കുവാണങ്കില് നമുക്ക് കാണാൻ പറ്റും ആണെങ്കിൽ ഒരു ബി ജെ പി യും അതുപോലെന്നെ ഒരു എൽ ഡി എഫ് സീറ്റും മാത്രമാണ് ആ രണ്ടു ഗ്രൂപ്പ് കാർക്കും കിട്ടിയേക്കുന്നത് ബാക്കി മുഴുവനും യു ഡി എഫിൽ അതായത് കോൺഗ്രസ്സ് കാരാണ് എടുത്തിരിക്കുന്നത് അപ്പം അതായത് കഴിഞ്ഞ കൊല്ലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലീഡ് ചെയ്തു കൊണ്ടിരുന്നത് അപ്പം ഇപ്പം നമ്മളിങ്ങനെ മാറി വന്നു കൊണ്ടിരിക്കുവാണ് ഓരോ അഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ അവരുടെ എന്താ അവർ തീരുമാനിക്കുന്നത് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ഇതു മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ താത്പര്യം മാറി കൊണ്ടിരിക്കുവാണ് അതുപോലെ ഓരോരുത്തരുടെ ഭരണം അതുപോലെ പ്രതിപക്ഷം അവർ എങ്ങനെയാണ് ആ ഒരു നമ്മുടെ കേരളത്തെ കൊണ്ട് പോകുന്നത് അല്ലേ നമ്മുടെ രാജ്യത്തെ കൊണ്ട് പോകുന്നതെന്നു നോക്കിയിട്ടാണ് അവരോരോ തവണയും വോട്ട് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ഇവർക്ക് ഇവരുടെ വികസന പ്രവർത്തനങ്ങളെന്തു മാത്രം മുന്നേറ്റമുണ്ട് അല്ലെങ്കിൽ എന്തു മാത്രം വീഴ്ച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും